ആ ഇപ്പം ന്യൂസ് ഏതാണെങ്കിലും റേഡിയോയാലും ടി വിയാ ടി വിയായാലും പത്രമായാലും നമ്മുടെ ലാംഗ്വേജ് കേൾക്കുമ്പോഴാണ് നമുക്കതൊരു കുറച്ചും കൂടി മനസ്സിലാകുന്നു പിന്നെ കണക്റ്റാകും നല്ല രീതിക്ക് ഈ നമ്മുടെ ലാംഗ്വേജിൽ ന്യൂസെല്ലാം കേൾക്കുമ്പോൾ അതാണ് പിന്നെ ഈ നമ്മളിപ്പോൾ ഞമ്മളിപ്പോൾ കോളേജ് പഠിക്കുന്നതു കൊണ്ട് ഇംഗ്ലീഷ് വായിച്ചെ വായിച്ചത്ര ഇംഗ്ലീഷറിയത്തില്ലെങ്കിലും ബേസിക്കായിട്ട് വായിക്കാനുള്ള ഇംഗ്ലീഷ് വെച്ച് നമ്മളും മനസ്സിലാക്കിയെടുക്കും എന്നുള്ളത് കുഴപ്പമില്ല പക്ഷേ ബാക്കി ഒന്നും ഇംഗ്ലീഷും വേറെ ലാംഗ്വേജ് മലയാളം മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞുള്ള കുറേ പേര് കേരളത്തിലുണ്ട് കൂലിപ്പണിക്ക് പോകുന്നവരും പിന്നെ എന്താ എന്ത് എന്ത് ഫാമർസായിട്ടിരിക്കുന്നവരും എല്ലാവരും കൃഷി കൃഷി ചെയ്യുന്ന കൃഷി ചെയ്യുന്നവരും അങ്ങനെ കുറച്ച് പേരുണ്ടപ്പോൾ അവർക്ക് ഈ ഇംഗ്ലീഷൊന്നും അറിയത്തില്ല അവർക്കീ നമ്മുടെ അവരുടെ ഭാഷ മലയാളത്തിൽ ഇവിടെ കേരളത്തിൽ മലയാളത്തിൽ ചെയ്താലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ പത്രമായാലും പത്രമോ ആ അവർക്ക് മലയാളേ വായിക്കാനറിയത്തുള്ളൂ മലയാളത്തിൽ വായിച്ചാൽ അത് അവർക്ക് കണക്ക് മനസ്സിലാകത്തുള്ളൂ കണക്റ്റാകത്തുള്ളൂ അത് ആ അങ്ങനെയാണപ്പോൾ ഇപ്പോൾ വലിയ വലിയാൾക്കാർ പോലും ബിസിനസ്സ് ചെയ്യുന്നവർ പോലും മലയാളം മാത്രമറി അറിയാമെന്നുള്ളവരുണ്ട് അവർ പോലും മലയാളത്തിൽ വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അതാണിപ്പോൾ അതിൻ്റെ ന്യൂസ് പേപ്പറിൻ്റെ ഒരു സംഭവമെന്ന് പറഞ്ഞാൽ ഇതാണ് അതിപ്പോൾ ഏത് ലാംഗ്വേജായാലിപ്പം മലയാളമായാ മലയാളത്തിൽ കേൾക്കണം തമിഴായാ തമിഴിൽ കേൾക്കണം ഇംഗ്ലീഷും അറിയത്തുള്ളേ ഇംഗ്ലീഷ് കേൾക്കണം ഹിന്ദിയാണേ ഹിന്ദി അതിന് നമ്മുടെ ഭാഷയിലാണ് ഒരു സാധനം വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലായും ക നല്ല രീതിക്ക് കണക്റ്റാകത്തുള്ളു അതാണ് അതിൻറ്റൊരു സംഭവം പിന്നേ എല്ലാവർക്കും വായിക്കാൻ അറിയണമെന്നില്ല ഇപ്പോൾ എൻ്റെ മദർ ടങ്ങെന്നു പറഞ്ഞാൽ തമിഴാണ് പക്ഷെ എനിക്ക് ഞാൻ എൻ്റെ നേറ്റീവ് മൊത്തം കേരളയാണ് അതായത് എൻ്റെ ഞാൻ ജനിച്ചതും പപ്പ ജനിച്ചതും പപ്പയുടെ പപ്പ ജനിച്ചതും എല്ലാവരും കേരളയിൽ തന്നെയാണ് നേറ്റീവെല്ലാം കേരളയാണ് പക്ഷെ മദർ ടങ്ക് തമിഴാണ് അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ക് സ്കൂളിലൊക്കെ തമിഴാണ് പഠിച്ചത് പക്ഷെ എനിക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞൂ കൂടാ സംസാരിക്കും നല്ല രീതിക്ക് നോക്കി വായിക്കാൻ അറിയത്തില്ല എഴുതാൻ അറിയത്തില്ല അപ്പോൾ നമുക്ക് ഈ നിങ്ങളെ എന്നെ പോലെ ഇരിക്കുന്ന ആൾക്കാർക്കിങ്ങനെ ന്യൂസ് കേൾക്കുമ്പോഴും കാണുമ്പോഴും മനസ്സിലാക്കാൻ പറ്റും റേഡിയോയിലിങ്ങനെ അവർ വായിച്ച് കേൾപ്പിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്നെ ഞങ്ങളെ പോലുള്ള ആൾക്കാർക്കിങ്ങനെ മൻച് മലയാളം വായിക്കാനും എഴുതാനും അറിയാത്ത ആൾക്കാർക്ക് ഇങ്ങനെയാണ് സംഭവങ്ങൾ കാര്യം കിട്ടുന്ന പിന്നെ ടീ വിയിലാകുമ്പോൾ അവരിങ്ങനെ വീഡിയോയിലൂടെ ഇട്ട് കാണിക്കും എന്താ നടന്നത് എന്നുള്ളത് അതും കൂടി കാണുമ്പോൾ നമുക്ക് അത് അവിടെ നടന്ന സംഭവത്തിൻ്റെ ഒരു പ്രഷർ ഫീൽ ചെയ്യാൻ പറ്റും നമുക്കിവിടെ വന്നിട്ട് അയ്യോ ഇങ്ങനെയൊക്കെയായല്ലോ എന്നാ പറ്റി നേരിട്ട് നേരിട്ട് കണ്ടില്ലെങ്കിലും ആ ടി വിയിൽ കൂടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അവിടെ ഏതു രീതിയിലാണ് എല്ലാം എഫക്റ്റായി കിടക്കുന്നത് എന്നാക്കെ സംഭവിച്ചു എന്നുള്ളൊരിത് നമുക്ക് അവിടെ നേരിട്ട് കണ്ടില്ലെങ്കിലും നമുക്ക് വീട്ടിൽ ഇരുന്ന് ടി വി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ അപ്പോൾ അതാണ് അപ്പോൾ ഈ റേഡിയോയും ടി വിയും ഒരു നല്ല ഒരു ഐഡിയായിരുന്നത് കണ്ട് പിടിച്ച ആൾക്ക് ഒരു ഞാൻ ഒരു അപ്രീസിയേഷൻ അപ്രീസിയേഷനല്ല ഒരു താങ്ക്സ് പറയുന്നു പുള്ളിക്ക് ഇതിപ്പോൾ ഞങ്ങൾക്കിത്ര യൂസ്ഫുളായില്ലേ എന്താ ഇങ്ങനത്താൾക്കാർക്ക് എന്താ വായിക്കാനും എഴുതാനും അറിയാത്താൾക്കാർക്ക് കേട്ട് മനസ്സിലാക്കാനും പിന്നെ ടീ വിയിലിങ്ങനെ കാണുന്നത് അതൊരു നല്ലൊരു ഇതായിരുന്നു പിന്നെ ഇത് കുറച്ചും കൂടി ഡെവലപ്പാക്കുക എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിപ്പോൾ എന്നത് ഇത് ഓക്കെയാണ് നമുക്കും എല്ലാ ദിവസം വാർത്ത എത്തുന്നുണ്ട് പക്ഷേ എല്ലാവരും ന്യൂസ് കേൾക്കുന്നുണ്ടോ വായിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല അതാണ് സത്യം ഇനിയിപ്പോൾ ന്യൂസ് വായിക്കുന്ന മിക്ക എയ്റ്റി പേർസെൻറ്റേജാൾക്കാരും ഇങ്ങനെ എന്താ വലിയ വലിയ ആൾക്കാരായിരിക്കും ചെറുപ്പക്കാരാരും ന്യൂസ് വായിക്കാറില്ല ചെറുപ്പക്കാർ ന്യൂസ് വായിക്കാറുള്ള രീതിക്ക് എടുത്ത് മോൾഡേയ്ത്തെടുക്കുക അട്രാക്റ്റ് ചെയ്യിക്കുക അവർ അതാണ് ഇതിൻ്റെ ഒരു സംഭവം ഇങ്ങനെ ചെറുപ്പക്കാർ വായിച്ച് എന്താ ന്യൂസ് ഡെയിലി കേട്ട് ന ന്യൂസ് കേൾക്കുന്നൊരു നോളേജ് തന്നെ ജർ ജനറലായിട്ടുള്ള ന്യൂസെന്നു പറയുമ്പോൾ നമ്മളെന്താ ആക്സിഡൻറ്റ് കൊല അങ്ങനെ മാത്രമല്ലല്ലോ കുറേ ന്യൂസുണ്ടല്ലോ ഇങ്ങനെ ഗോൾഡ് മെഡൽ മേടിച്ചു എന്താ ഇവിടെ പോയി കുറേ കാര്യം ചെയ്തപ്പോൾ ലോകത്തുന്നൊക്കെ നടക്കുന്നുള്ളത് ആ ന്യൂസിൽ നമുക്ക് ഡെയ്ലി കാണുമ്പോൾ കാണുമ്പോൾ മനസ്സിലാണ് അപ്പമത് വലിയൊരു പത്രം വായിച്ചിട്ട് കാര്യം ഇല്ല ചെറുപ്പാക്കാരെയും കൊണ്ട് വായിപ്പിക്കാനുള്ള ഒരിതിൽ ന്യൂസുകാർ എന്തെങ്കിലും ഒരു ചെയ്യണം അവരെ അട്രാക്റ്റ് ചെയ്യുന്ന പോലെയോ ന്യൂസങ്ങനെയൊക്കെയായിരിക്കണം അല്ലാതിപ്പോൾ ഈ നോർമൽ ന്യൂസൊക്കെയാണേ ഇപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ അങ്ങനെ വരുമെന്നുള്ളതു കൊണ്ട് അതൊക്കെ ന്യൂസുകാർ കുറച്ചും കൂടി നല്ല രീതിക്കൊന്ന് യൂസ് ചെയ്യുകയും ഈ ഇൻസ്റ്റാഗ്രാമാണ് യങ്ങ്സ്റ്റേർസ് ഫുൾ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് അപ്പോൾ അവരതൊന്ന് യൂസ് ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ഇൻസ്റ്റേഴ്സിനെ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്തെടുക്കാം ന്യൂസിങ്ങനെ ഇട്ട് ന്യൂസ് അവർ വായിച്ചെടുക്കുന്ന രീതിക്കിങ്ങനെ അട്രാക്റ്റ് ചെയ്തെടുക്കാം എന്നുള്ള രീതിക്ക് ഒന്ന് ചെയ്തെടുക്കുക